ഞങ്ങൾക്ക് ട്ടാപ്പ് വെള്ളം ലഭിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ ട്ടാപ്പ് വെള്ളം ലഭിച്ചാലും ഞങ്ങൾ തിളപ്പിച്ചാണ് കുടിക്കാറ് ഞങ്ങൾക്ക് കിണറുണ്ട് കിണറ്റിലെ വെള്ളമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ട്ടാപ്പിലെ വെള്ളത്തിൽ കുളിച്ചാൽ ശരിയാണ് മുടിയൊക്കെ ഒരുപാട് ഊരുന്നുണ്ട് കാരണം ക്ളോറിനൊക്കെ ചേർത്തുള്ള വെള്ളമാണല്ലോ നമ്മളുടെ കിണറ്റിലെ വെള്ളമെന്നു പറഞ്ഞാൽ നമ്മൾ അത് നന്നായിട്ട് എല്ലാ വർഷവും തേകി അഴുക്കെല്ലാം കഴുകി കളഞ്ഞു തരുന്ന വെള്ളമാണ് അത് നമ്മൾ തിളപ്പിച്ച് ആണ് എല്ലാം എടുക്കുന്നത് എല്ലാ വെള്ളവും തിളപ്പിച്ചാൽ പണ്ടുള്ള കാലത്ത് ഇത്രയും മലിനമില്ലായിരുന്നു ആ മലിനമില്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ പച്ചവെള്ളം കുടിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് വർഷങ്ങളായി ഇപ്പം തിളപ്പിച്ച വെള്ളമാണ് കുടിക്കാറുള്ളത് ട്ടാപ്പുവെള്ളമെന്നു പറഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് എടുത്ത് അത് പോകാതെ നശിപ്പിക്കാതെ ഉപയോഗം ചില കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടു വന്നു ട്ടാപ്പുവെള്ളം അങ്ങു തുറന്നിടും ആ വെള്ളമൊട്ടും ഞങ്ങൾ

ട്ടാപ്പിലേതെന്ന് പറഞ്ഞാല് വഴിയിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അത് ഞങ്ങൾക്ക് കിണറ്റിൽ എന്തെങ്കിലും ഒരു പിന്നെ വയ്യ അതായത് അഴുക്ക് വെള്ളം ആണെന്ന് കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇലയുമൊക്കെ വീണൂ കഴിഞ്ഞാലാണ് ഞങ്ങൾ കൂടുതൽ അതിൽ നിന്നും ഉപയോഗിക്കാറുള്ളത് കിണറ്റിലെ വെള്ളം തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് അറിയാം ട്ടാപ്പിലെ വെള്ളം നല്ല വെള്ളം അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കൂടുതലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവ് അതുകൊണ്ടു ഞങ്ങൾ ആ ട്ടാപ്പിലെ വെള്ളം ലഭിച്ചാൽ ഞങ്ങളുടെ ഞങ്ങൾ കൂടുൽ അതു തിളപ്പിച്ചായിരിക്കും എടുക്കുന്നത് അതുപോലെ ശുദ്ധമാണോ എന്നു പറയുന്നത് ഞങ്ങൾക്ക് അതു വിശ്വസിക്കാൻ പറ്റത്തില്ല അത് ശുദ്ധമല്ല എന്നാണ് അത് ഞങ്ങൾ ശുദ്ധമാകാൻ വേണ്ടിയാണ് ഞങ്ങൾ വെള്ളം തിളപ്പിക്കുന്നത്